എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബൈക്കെന്നു പറയുന്നത് ആർവൺഫൈവ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്കും ആർവൺഫൈവ് ആണ് പിന്നെ അതുപോലെത്തന്നെ ഇപ്പം ട്രെൻഡിങ് കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നത് ഒരു നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മഹേൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ എന്താണ് ഹിമാലയേന്റെ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അതാണിപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലിപ്പം അതിൻ്റെ റോയൽറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിന് ഭയങ്കരമായിട്ട് ഇപ്പം ഹൈപ്പ് കാര്യങ്ങളൊക്കെ വന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം റോയൽ എൻഫീൽഡ് എന്നു പറയുന്ന എൻ്റെ ഹിമാലയൻ എന്നു പറയുന്ന ഒരു വെർഷൻ ഓഫ് റോഡിൻ്റെ രാജാവെന്നുള്ള രീതിയിൽത്തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ ഇപ്പം മെയിൻ ആയിട്ട് ഇപ്പോൾ അതിന്റെ ഒരു പുതിയ വെർഷൻ എന്നു പറഞ്ഞ രീതിയിൽ വരുന്നത് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ ട്രാവൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ക സ്ഥലങ്ങളും കാണുക ഇതൊക്കെ എൻജോയ് ചെയ്തു പോകാൻ പറ്റിയൊരു സാധനമാണ് ബൈക്ക് റൈഡ് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല എന്താ ഒരു എന്താണ് റോഡ് വഴിയും അല്ലെങ്കിൽ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഇപ്പം ഹിൽസ്റ്റേഷൻസ് കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിലും ഒക്കെ നോക്കുന്ന രീതിയിലുള്ള ഇത് കാര്യങ്ങളുണ്ട് പിന്നെ ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഇപ്പം ട്രെൻഡിങിലായി നടക്കുന്ന കുറേ റൂട്ടുകളെന്നു പറയുമ്പോൾ ഇപ്പം കുളു മണാലി കാര്യങ്ങൾ ഒക്കെയാണെങ്കിലും മണാലി ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം ഫേമസ് ആയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ലഡാക്കിൽ പോകുന്നതാണെങ്കിലും ഒക്കെ ഒട്ടനവധി ആൾക്കാർ ഇപ്പം മഞ്ഞ് കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇപ്പം യാത്രകൾ ഭയങ്കര ഇതാണെങ്കിലും മണാലിക്ക് വേണ്ടിയിട്ടൊക്കെ അത്രയും ഡ്രീം കാര്യങ്ങളൊക്കെയായിട്ട് നടക്കുന്ന ഇഷ്ടമ്മാതിരി ആൾക്കാർ കാര്യങ്ങളുണ്ട് അത് അവർ ഓരോ ലൊക്കേഷനും അത് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ ഒരു ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അതൊക്കെ അനുസരിച്ച് പോകുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ മൂന്നാർ കാര്യങ്ങൾ അങ്ങനെ റോഡ് വഴിയും ഒക്കെ പോന്നേൻ്റെ ഓരോരോ ഇതുണ്ട്